പണ്ടൊക്കെ നമ്മള് മലയാള ഭാഷയുടെ ഉപയോഗങ്ങളൊക്കെ നമ്മള് ചെയ്യും പക്ഷേ ഇപ്പമെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയും ഇൻ്റർനെറ്റുമൊക്കെ വന്നതോടെ എന്താ അതിൻ്റെ ഒന് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുന്നു മലയാള ഭാഷയിൽ അപ്പമെന്ന് വെച്ചാൽ അതിനകത്ത് പല ഇതിലൊക്കെ കാര്യങ്ങള് വരികയും ചെയ്യുന്നുണ്ട് അപ്പം സാ നമ്മള് ഇപ്പം എം ഡി സി പഠിക്കുമ്പോൾ ഒക്കെ നമ്മള് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട് മലയാള ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മലയാള ഭാഷ എന്ന് വെച്ചാൽ നമ്മള് മലയാളത്തില് ഭാഷയില് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതിനകത്ത് നമ്മള് വന്ന മാറ്റങ്ങളെന്ന് വെച്ചാല് എന്താ സാങ്കേതിക വിദ്യയിൽ വന്ന ചില മാറ്റങ്ങളാണ് ഈ ഭാഷയിലൊക്കെ വരുന്നത് മലയാളത്തിൽ വരുന്നത് അതിൻ്റേതായ കുറെ മാറ്റങ്ങളൊക്കെ വന്ന് കഴിയുകയും ചെയ്യുന്നു ഓരോ മാറ്റങ്ങള് അതിൻ്റേതായ ഇതൊക്കെ വരുമല്ലോ സാങ്കേതികവിദ്യ വന്ന കാലം വന്നപ്പം മുതലുള്ള മലയാള ഭാഷകളിലൊക്കെ മാറ്റങ്ങളുണ്ടായി പിന്നീട് സാങ്കേതികവിദ്യയായി ഇന്റർനെറ്റായി അതുപോലെ മൊബൈലായി ലാപ്ടോപ്പായി അപ്പം ഇന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പം എന്താ സാങ്കേ സാങ്കേതികകരമായ കാര്യങ്ങളില് കുറിച്ച് നമുക്കെന്ത് വേണേല് നമുക്ക് ചെയ്യാം ഇപ്പം എന്താ ഒന്നെങ്കിൽ ചെയ്യുന്നു നമ്മള് നമുക്കായ നമ്മളിപ്പം മലയാള ഭാഷയാണോ ചെയ്നു ചെയ്യുന്നത് മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഈ വാർത്ത അങ്ങനെ ഉള്ള കാര്യങ്ങള് സാങ്കേതിക വിദ്യയേ കുറിച്ച് പറയുന്നു ഇൻ്റനെറ്റ് ഇൻ്റനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മ നമ്മളിപ്പളായ ഇപ്പം ചെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് ഫോണിലൊക്കെ ഇൻ്റനെറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പം നമ്മള് ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഉപയോഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ മലയാള ഭാഷയിൽ തന്നെ മുൻപ് തന്നെ നമുക്ക് എന്തേലും മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇപ്പമെന്ന് വെച്ചാല് അതിന്റെ വളർച്ചക്കൊപ്പം തന്നെയാണ് മലയാള ഭാഷയെന്ന് സാങ്കേതിക വിദ്യയുടെയും എന്നതിന്റെയും വളർച്ചക്കൊപ്പം ഉള്ള സാങ്കേതിക മാറ്റങ്ങളൊക്കെ വന്നു നമ്മള് അപ്പം ഈ ഭാഷ മലയാളത്തിലൊക്കെ വരികയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ചെയ്യുകയും ചെയ്യുന്നു നൽകുകയും ചെയ്യുന്നു സാങ്കേതികത്തിൽ എത്തുകയും ചെയ്യുന്നു അപ്പം നമ്മളേയും അതതിൻ്റെ അതിൻ്റെതിൽ നിന്ന് കുറെ മാറ്റങ്ങള് നമുക്ക് വരുന്നുണ്ട് സാങ്കേതികപരമായ ഇന്റർനെറ്റ് അതുപോലെ തന്നെ അതൊക്കെ ഇതൊക്കെ വന്നതോട് കൂടിയാണ് മലയാള ഭാഷയ്ക്ക് കുറെയേറെ മാറ്റങ്ങള് വന്നത് തന്നെ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന് മലയാള ഭാഷ ഉപയോഗിക്കും ഇപ്പം നമ്മള് ഇപ്പം നമ്മള് എഴുതുമ്പം തന്നെ മലയാള ഭാഷ ഉപയോഗിക്കും അത് പക്ഷെ പണ്ട് കാലത്തൊക്കെ ഇതൊക്കൊരു വേറേറെ ഭാഷകളാണ് സംസ്കൃതം പോലുള്ള മറ്റ് ഭാഷകളാണ് വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഉപയോഗം തന്നെ മാറ്റങ്ങളാണ് ഈ ഈ നെറ്റും സാങ്കേതിക ഇതുവൊക്കെ വന്നതോടു കൂടെ നമ്മുടെ മലയാള ഭാഷയുടെ ഉപയോഗത്തില് കുറെ മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്നാ ഇത് പണ്ടൊക്കെ ഇപ്പം ഭാഷകൾ പലതരത്തിലുള്ള പണ്ടൊക്കെ ഉണ്ടായ സംസ്കൃതം ഉണ്ടായിരുന്നു അങ്ങനെ തമിഴ് ഈ തമിഴൊക്കെ വന്നതിൽ പിന്നെയാണ് മലയാള ഭാഷ ഉണ്ടായത് തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കും വളർച്ചക്ക് തന്നെ സഹായിക്കുന്നുണ്ട് നമ്മളാ ഇതിന്റെ ഇൻർനെറ്റ് വഴി സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഉപയോഗം മാറ്റങ്ങൾ വരികയല്ലെ